ഇപ്പോൾ മലയാളത്തിൻ്റെ ഭാഷാഭേദങ്ങൾ അങ്ങനെ നമ്മള് പഠിക്കുകയോ കാര്യമായിട്ടങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോൾ മലയാളത്തിൽ തന്നെ എന്താ പറയുക പലതരത്തിലുള്ള ഭാഷ മലയാളത്തിൽ തന്നെ കണ്ടു വരുന്നു അതായത് ഇപ്പോൾ നമുക്ക് ഈ മലയാളത്തില് ഭാഷ വ്യത്യാസം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മള് കണ്ടുവരുന്നത് സംസാരിക്കുമ്പോളുള്ള വ്യത്യസമാണ് കാരണം എന്താ പറയുക എഴുത്തിലും കാര്യങ്ങളിലൊന്നും അങ്ങനെ വലിയ വ്യത്യാസം ഇല്ലെങ്കിലും കൂടുതലായിട്ടും നമ്മളിപ്പോൾ കണ്ടുവരുന്നത് വയനാട്ടിൽ നിൽക്കുന്ന നമുക്ക് ഇപ്പോൾ എന്താ പറയുക ഒര് സ്ലാങ് അത്കഴിഞ്ഞ് പുറത്തേക്ക് പോ പോകുവാണെങ്കിൽ പാലക്കാട്ടുകാർ അവർക്ക് വേറെ സ്ലാങ് പിന്നെ തൃശ്ശൂര്കാർക്ക് വേറെ സ്ലാങ് അംഗമാ അങ്ങനെ പറയുക ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവരുടേതായ വ്യത്യസ്ഥമായ രീതിയിലുള്ള സംസാര രീതികളാണ് കണ്ടു വരുന്നത് അപ്പോൾ നമ്മള് കുറെ എന്താ പറയുക പഠിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് അല്ലാണ്ട് കൂടുതലായിട്ട് പഠിക്കാനൊന്നും നമുക്ക് അതിനെ പറ്റി കൂടുതൽ പഠിക്കാനൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഓരോ സ്ഥലത്താണ് ഈ ഭാഷകള് വേറെ വേറെ രീതിയില് മലയാള ഭാഷയുടെ തന്നെ വേറെ വേറെ രീതികള് കണ്ടിട്ടുള്ളത് പിന്നെന്താ പറയുക ആ ആധുനിക പണ്ട് കാലത്തൊക്കെ മലയാളം വേറൊര് എന്താ പറയുക രീതിയിലായിരുന്നു ബ്രാഹ്മണന്മാരൊക്കെ സംസാരിക്കുന്ന എന്താ പറയുക വലിയ എന്തോ രീതിയിലൊക്കെയാണ് അവരുടേതായ ഒര് രീതിയിലാണ് അവര് സംസാരിക്കുക പിന്നെ ഓരോരുത്തരും എന്താ പണ്ടത്തെ ആധുനിക കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ എന്താ പറയുക മലയാളത്തില് തന്നെ കുറെ ഇതുണ്ട് വ്യാഖ്യാനത്തിലൊക്കെ എന്തൊക്കെയോ വ്യത്യാസങ്ങള് നമ്മള് കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഓൾമോസ്റ്റ് എന്താ പറയുക എല്ലാവരും തന്നെ അ മലയാളം ഒരേ രീതിയിൽ തന്നെയാണ് കൂടുതലായിട്ടും സംസാരിച്ച് വരുന്നത് എന്നാൽ ആ തൃശൂര് ഭാഷയിൽ ആണെങ്കിലും ഓരോരോ പ സ്ഥലത്തേക്ക് വരുമ്പോഴാണ് അതിൻ്റെതായ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്